ഹരിതവും വൃത്തിയും ഉള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനായി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു മാലിന്യ സംസ്കരണ രീതി മനുഷ്യർ അവരുടെ ജീവിതചര്യയിൽ ഉപയോഗിച്ചു തുടങ്ങുക അതുപോലെത്തന്നെ മറ്റുള്ളവരെ അത് പറഞ്ഞു മനസ്സിലാക്കുക അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അതിലൂടെ അവരും അത് അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹരിതവും വൃത്തിയുമുള്ളൊരു പരിസരത്തെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലുള്ള ഒരു സംവിധാനമാണ് ഹരിത കർമ്മസേന നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങളെ അവർ കളക്ട് ചെയ്യുകയും അതിലൂടെ ശേഖരിത മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ഹരിതകർമ്മസേന അപ്പം അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത്രയും പ്രശംസ അവർ അർഹിക്കുന്നതും ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ കൃത്യമായ ആഴ്ചകളിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചില ഗ്രാമപ്രദേശങ്ങളിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ അവർ കൃത്യമായ ഇടവേളകളിൽ വരുകയും മാലിന്യങ്ങൾ ശേഖരിക്കുകയും അവയെ കൃത്യമായി സംസ്ക്കരണം ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ടൂറിസത്തെ പച്ചപ്പിനെയും എങ്ങനെയാണ് അതായത് നദികളെയും പർവ്വതങ്ങളെയൊക്കെയും എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് ഈ ഇടയ്ക്ക് ഞാൻ മണാലിക്കടുത്തുള്ള റോഹ്താങ്ങ് പാസ്സിൽ അതായത് ഹിമാചലിലെ ഒരു സ്ഥലമാണ് റോഹ്താങ്ങ് പാസ്സ് ആ ഒരു സ്ഥലത്തോട്ട് പോയിരുന്നു പക്ഷേ അവിടെ ഞാൻ കണ്ടതെന്ന് വച്ച് കഴിഞ്ഞാൽ അത് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കാണാൻ വളരെയധികം ഭംഗിയുള്ള മഞ്ഞാൽ മൂടപ്പെട്ട ഒരു മല എന്നാൽ ആ മലയിൽ ദൂരെ നിന്ന് കാണുമ്പോൾ വെള്ള കളറ് മഞ്ഞ് നിറഞ്ഞതാണെങ്കിലും അടുത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ അധികം മാലിന്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പം സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് അതുപോലെത്തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ അവരു കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾ കഴിച്ച ആഹാരത്തിൻ്റെ പ്ലാസ്റ്റിക്ക് കവറുകൾ എന്തുമാത്രം മാലിന്യങ്ങളാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത്രയും നമ്മുടെ പർവ്വത നിരകളിലായാലും ഇത്രയും പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കൂടി ആ ഒരു സ്ഥലത്തെ ടൂറിസം എന്ന ഒരു ഒരു കാര്യം കൊണ്ടത് അത്ര മലിനീകരണപ്പെട്ടു വളരെ അധികം ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ടൂറിസം കാരണം നമ്മുടെ നദികളും നമ്മുടെ തടാകങ്ങളും നമ്മുടെ ചുറ്റുപാടും വളരെയധികം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു സംയോപനമുള്ള അതായത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മാറ്റുവാനായിട്ട് സാധിക്കും അതിനെതിരെ ചെറുത്തു നിൽക്കുവാനും മറ്റുള്ളവരെ പറന്നു പറഞ്ഞു ബോധ്യപ്പെടുത്തി നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കി ഒരു പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി പലതും നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും അതായത് അതിനെ സംരക്ഷിക്കുക അതുപോലെത്തന്നെ കൂടുതൽ വൃക്ഷങ്ങളെ നട്ടുവളർത്തുന്നതിലൂടെ അവയെ കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടുറിസത്തെ അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിനെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും